ആ ആരാണ് ഉള്ളത് എന്താണ് ഫംഗ്ഷൻ ഉണ്ടോ വീട്ടിൽ അതെയോ ആ നല്ലത് ആ കടയിൽ പോയിട്ട് വാങ്ങുന്നതാണ് അതാണ് ഓൺലൈനായിട്ട് വാങ്ങുന്നതാണ് നേരിട്ട് ആയിട്ട് എടുക്കാനാണ് നേരിട്ട് ആയിട്ട് എടുക്കാൻ ബിന്ദു ജ്വല്ലറി നല്ലത് ഉണ്ടെന്ന് തോന്നുന്നു നല്ല കളക്ഷൻസും ആ ആ ഇവിടെ കളപ്പുര ആ ബിന്ദു ജ്വല്ലറി ആ ഇത് അടുത്ത് അത് ഇവിടെ കരണ്ടക്കാട് അങ്ങോട്ട് പോവുമ്പോൾ പുതിയ ബസ്റ്റാൻഡിൻ്റെ ഒക്കെ അടുത്ത് ആയിട്ട് വരും ആ ആ അവിടെ എനിക്ക് പരിചയം ഉള്ള ഒരു സെയിൽസ് ഗേൾ ഉണ്ട് രശ്മിത എന്ന് പറഞ്ഞിട്ട് ഉള്ളത് അപ്പം ഞാൻ പോവുന്ന ദിവസം ഉണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ അവരോട് വിളിച്ച് പറയാം വരുന്നുണ്ടെന്ന് ആ പിന്നെ നല്ല കളക്ഷൻസ് ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ ഡിസ്കൗണ്ടും ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ പിന്നെ ഓഫറ് ഇപ്പം ആ ആ ന്യൂഇയറിൻ്റെ ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ ആ രമ്യ പോവുന്ന ദിവസം ഉണ്ടെങ്കിൽ ഞാൻ ആ അന്ന് വിളിച്ചിട്ട് പറയാം ആ ആ കുട്ടിയെ വിളിച്ചിട്ട് പറയാം അപ്പം അവർ പ്രത്യേകമായിട്ട് നിങ്ങളെ കെയറ് ചെയ്യും നോക്കുമായിരിക്കും പിന്നെ നല്ല ഡിസൈൻസ് ലേറ്റസ്റ്റ് ഡിസൈൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ അവരുടെ സ്റ്റാറ്റസ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം നല്ല കളക്ഷൻസ് ഉണ്ടെന്ന് തോന്നുന്നു ആ അതെ നൈൻ വൺ സിക്സ് അല്ല കളക്ഷൻസ് ആ മാലയിൽ മാലയിലാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ നല്ല കളക്ഷൻസ് ഞാൻ കണ്ടിട്ടുള്ളത് മറ്റേതും നല്ലത് ഉണ്ട് മാല സ്പെഷ്യലായിട്ട് ആ ഗോൾഡ് തന്നെ അല്ലേ എടുക്കുന്നത് ഡയമണ്ട് നോക്കുന്നുണ്ടോ ഗോൾഡ് തന്നെ ആണോ എടുക്കുന്നത് അതോ ഡയമണ്ട് നോക്കുന്നുണ്ടോ ഗോൾഡ് ആണല്ലേ അപ്പം ഗോൾഡിൽ നല്ല കളക്ഷൻസ് വരുന്നുണ്ട് ബിന്ദുവിൽ അല്ലെങ്കിൽ മലബാർ ഗോൾഡിൽ പോകണം അതും പേര് കേട്ടതല്ലേ ആ ഇല്ല ആ മലബാർ ഗോൾഡ് നിന്ന് എടുത്തിട്ടുണ്ട് ആ ആ ഓക്കെ അപ്പം വിളിച്ചിട്ട് ആ നല്ലതിൽ നല്ലത് ബിന്ദുവാണ് മലബാർ ഗോൾഡിനെ കഴിഞ്ഞ് ഓക്കെ അപ്പം വിളിച്ചിട്ട് വാ കേട്ടോ